ആ ഞാൻ ആദ്യം ഇഷ്ടപ്പെടാതെ തോന്നിയതും എനിക്ക് വായന അങ്ങനെയുള്ള വലിയൊരു താത്പര്യമില്ലായിരുന്നു അപ്പം എനിക്ക് ഒരു എൻറ്റൊരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നൊരു പുസ്തകം എനിക്ക് ഗിഫ്റ്റ് തന്നു അപ്പം ആദ്യം ഞാൻ വായിച്ചു നോക്കിയപ്പം എനിക്കതങ്ങനങ്ങോട്ട് അതിനകത്തോടതത്ര ഒരു ഇതു തോന്നിയില്ല എങ്കിലും പിന്നെ മറച്ചു വെച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഞാനതെടുത്തു വായിക്കാൻ തുടങ്ങി അതു വായിച്ചു വായിച്ചു വന്നപ്പോൾ ഗാന്ധിജിയുടെ എല്ലാ രീതിയിലും സത്യമായസന്ധമായിട്ടുള്ള ആൾക്കാരോടുള്ള ഇടപെടലും പിന്നെ തെറ്റ് ചെയ്യുന്നവരോടു പോലും ക്ഷമിച്ചു കൊണ്ടു മുന്നോട്ടു പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികളും അതു പോലെ തന്നെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തരാൻ വേണ്ടിയിട്ട് ഗാന്ധിജി കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാടും അതെല്ലാം വായിച്ച് മുന്നോട്ടു മുന്നോട്ടു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കാ പുസ്തകം വളരെ ഇൻട്രസ്റ്റായിട്ടു തോന്നി ഞാനത് മുഴുവനും ഇരുന്ന് വളരെ ശ്രദ്ധയോടു കൂടി വായിച്ചു അപ്പം നമ്മളെല്ലാവരും അതു പോലെ സത്യസന്ധമായിട്ട് നില നിൽക്കുകയും നീതിക്കു വേണ്ടിയിട്ട് പോരാടുകയും ചെയ്യണം എന്നുള്ള ആഹ്വാനം ഗാന്ധിജിയുടെ ആ പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഇല്ലാതെ പോകുന്നത് ആ കാര്യങ്ങളാണ് അതൊക്കെ അത് നമുക്കെല്ലാവരും എല്ലാ മനുഷ്യരും ആ പുസ്തകം വായിച്ചിരിക്കേണ്ടിയതാണ് അതിൻ്റെ അനുഭവങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വളരെ നല്ലയൊരു പുസ്തകമാണ് വായിച്ചിട്ടില്ലാത്തവരൊക്കെ ഇനി ആണെങ്കിലും അതെടുത്തു വായിക്കണം ആ ഒരു മനോഭാവം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകണം നമ്മുടെ പ്രവർത്തിയിൽ ഉണ്ടാകണം നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടു പോകാൻ തക്കോണം ആ പുസ്തകം ഏതൊരു ഹൃദയ കഠിനം ഉള്ള ആയിട്ടുള്ള ആൾക്കാർക്കും അവരെ ഹൃദയ മാറ്റം വരുത്തി അതു മുന്നോട്ടു കൊണ്ടു പോകാനായിട്ടു സാധിക്കും അങ്ങനെയൊരു നല്ലയൊരു പുസ്തകമാണ് അത് എനിക്ക് തന്ന ആ ആളിനോടു ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു ആദ്യം ഞാനതിനെ അത്ര വലിയ വിലയൊന്നും കൊടുത്തിരുന്നില്ല പക്ഷെയെങ്കിൽ അതു വളരെ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും നല്ലൊരു പുസ്തകം ആണെന്നു മനസ്സിലായി അതുകൊണ്ട് ഇതുവരെയും വായിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന രീതിയിൽ ആ പുസ്തകം മേടിച്ച് മനസ്സിരുത്തി വായിച്ച് അതിൻ്റെ അനുഭവം അറിഞ്ഞ് അനുഭവം പങ്കിടണം ഓക്കെ